ഈ മത്സ്യബന്ധനം മെച്ചപ്പെട്ടതും ഏളുപ്പമുള്ളതുമായ ഒരു തൊഴിലാക്കി മാറ്റുന്നതിന് സര്ക്കാറിന്റെ പിന്തുണ ആവശ്യമുള്ള കാര്യങ്ങള് എന്നു പറഞ്ഞാൽ സര്ക്കാര് അവര്ക്ക് കഴിയുന്നതും പ്രോത്സാഹനം കൊടുക്കുക പിന്നെ എന്നു പറഞ്ഞാൽ മഴയോ പ്രകൃതിക്ഷോപമോ അങ്ങനെ എന്തെങ്കിലും കടല്ക്ഷോപമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ മുന്കൂട്ടി അവരെ അറിയിക്കുക പോവ് കടലില് പോകരുത് ഇന്ന് മീന് പിടിക്കാന് പോകരുത് എന്നൊക്കെ പറഞ്ഞ് അവരെ പറഞ്ഞു മനസിലാക്കുക ഒക്കെ ചെയ്യുക അങ്ങനെ ചെയ്യുന്നതൊക്കെ നല്ല കാര്യം തന്നെയാണ് എന്നാൽ പിന്നെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ട് എന്ന് അറിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ട് എന്നു തോന്നിയാൽ കടലിൽ പോയ പോകാതിരുന്നാൽ അവര്ക്ക് നല്ലതു തന്നെയാണ് പിന്നെ കടലിൽ പോയിട്ട് ആണ് അറിയുന്നതെങ്കിലും പിന്നെ അവര്ക്ക് തിരിച്ചുവരാന് പറ്റുന്നില്ല പിന്നെ കടലിലേക്ക് വീണ് മരിയ്ക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അങ്ങനെ അങ്ങനെയുള്ളതൊക്കെ ഒഴിവാക്കാന് വേണ്ടിയിട്ട് സര്ക്കാർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവരോട് പറയുകയൊക്കെ ചെയ്യുക പിന്നെ എന്നുപറഞ്ഞാൽ അവര്ക്കായിട്ട് കുറച്ച് സംഭാവനകളൊക്കെ ബ് കൊടുക്കുക അവര്ക്കാണെങ്കിൽ മ് മത്സ്യബന്ധനം ചെയ്യുന്നവരല്ലേ നമുക്ക് വേണ്ടിയിട്ടല്ലേ അവർ ചെയ്യുന്നത് അപ്പം പിന്നെ അവര്ക്ക് വല മേടിയ്ക്കാനും അങ്ങനെയുള്ള ആവശ്യങ്ങള്ക്ക് ഒക്കെ ചെ എന്തെങ്കിലൊക്കെ ഒന്ന് കൊടുക്കുക പൈസയൊക്കെ കൊടുക്കുക അവരെ സഹായിക്കുക അങ്ങനെയൊക്കെ ചെയ്യുന്നത് നല്ലതു തന്നെയാണ്